സോലാനയുടെ ഫേസ് ക്രീം പ്രോഡക്ട് ആണ് ഒരു നെഗറ്റിവ് ആയി എനിക്ക് പറയാൻ ഉള്ളത് ആറ് മാസത്തിനുള്ളിൽ വെളുക്കും എന്ന് പറഞ്ഞിട്ട് തേയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിന് മേലെയായി ഇതുവരെ യാതൊരു മാറ്റവും വന്നിട്ടില്ല സോ ഈ പ്രോഡക്ട് വളരെ ഈ പ്രോഡക്ട് വളരെ ഒരു നെഗറ്റീവ് ആണ് ആളുകളുടെ ഇടയിൽ മിഥ്യാചാരണം ആണ് പ്രചരിപ്പിക്കുന്നത് അത്കൊണ്ട് ഈ പ്രോഡക്ട് യാതൊരു കാരണവശാലും ആരും മേടിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു